ഹലോ ആ ഇത് നമ്മുടെ ബൈക്ക് റെൻ്റിനു കൊടുക്കുന്ന ഡോൺ അല്ലേ

ആ ഞാൻ വിളിക്കുന്നത് ഞാൻ സി എം എസ് കോളേജിൽ പഠിക്കുന്നതാണ് കോട്ടയത്ത് ആ ഞാനിപ്പം ഇടുക്കിക്ക് എൻ്റെ പ്രോജക്ട് ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി ഞാൻ ഇടുക്കിക്ക് വന്നേക്കുകയാണ് അപ്പം ഞങ്ങൾ മൂന്ന് പേര് ഞങ്ങൾ മൊത്തം നാല് പേരാണ് ഞങ്ങൾക്ക് രണ്ട് ബൈക്കാണ് റെൻ്റിന് വരുന്നത് റെന്റ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഏത് ബൈക്കാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ കയ്യിൽ തല്ക്കാലം അല്ല ബൈക്ക് ബൈക്ക് സ്പ്ലെണ്ടർ മാത്രം ഉള്ളോ എൻ എസ് ആ എൻ എസ് കിടപ്പുണ്ടോ

ബുള്ളറ്റ് അല്ലേ ആ ഒരു ദിവസം നിങ്ങൾ എത്രയ്ക്കാണ് ഇത് വാടകയ്ക്ക് കൊടുക്കുന്നത് റെൻ്റിന് കൊടുക്കുന്നത് മിനിമം കൂടിപ്പോയാൽ

ആ സാരമില്ല ആ ചേട്ടാ നമുക്കിപ്പം ഒരു ഒരു മാസത്തേക്കാണ് വേണ്ടത് ആ ഞങ്ങൾ ഇടുക്കിയിൽ ഒന്ന് ഒരു പ്രോജക്ടിൻ്റെ ഇത് എങ്ങനെ ആ അങ്ങനെയാണല്ലേ ദിവസം അപ്പം എത്ര ആയിരിക്കും

റെൻ്റെ ഒന്ന് പറയാമോ നൂറല്ലേ നൂറല്ലേ ബുള്ളറ്റിനോ ഇരുന്നൂറ് ആ

ഇരുന്നൂറ് അപ്പം എന്താ വണ്ടിക്ക് എങ്ങനെയാണ് കണ്ടിഷൻ ഒക്കെ നല്ലതാണോ പേപ്പറും ബുക്ക് പേപ്പറും ബുക്കും ഒക്കെ ഉള്ളതാണോ ഉള്ളത് ഉണ്ടല്ലേ കാരണം നമുക്ക് കുറച്ചും കൂടെ റയിറ്റൊര് ഇരുന്നൂറിൻ്റെ താഴോട്ട് ബുള്ളറ്റ് എടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് കുറച്ച് റേറ്റ് കുറയ്ക്കുമോ ആ അതെ കുറച്ച് റേറ്റ് കുറയ്ക്കുമോ കാരണം ഞങ്ങൾ കോളേജ് സ്റ്റുഡൻറ്സ് ആയത്കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ അത്ര പൈസയൊന്നും ഇല്ല വലിയ അത്ര ചിലവിൽ അല്ല കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ആണ് ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ എന്തോ ഹലോ ആണല്ലേ കുറയ്ക്കാൻ പറ്റുമോ സ്പ്ലെൻഡർ അല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു ബുള്ളറ്റും ഒരു ആ എന്നാ സ്പ്ലെൻഡർ കൂടി എടുത്താലോ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പം അപ്പം നമുക്ക് എന്നത്തേന് കിട്ടും എഗ്രിമെൻ്റ അല്ലെ ഞങ്ങൾ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ ഇടുക്കിയിൽ വരും അന്നേരം ആ അതിൻ്റെ ഇതൊക്കെ ചെയ്യാം എന്നോർത്തായിരുന്നു ഇത് എവിടെയായിട്ടാണ് സ്ഥലം ഇത് എവിടെയായിട്ടാണ് സ്ഥലം മുരിക്കാശ്ശേരിയിൽ എവിടെ ആയിട്ടാണ് സിറ്റിയിലായിട്ടാണോ അതോ വേറെ എങ്ങനെയാണ് കോളേജിൻ്റെ അപ്പുറത്ത് ആയിട്ടല്ലേ ആ ആ കോളേജിൻ്റ അടുത്തായിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പം ഞങ്ങൾ വരാം